ഗ്രാമീണ ഗ്രാമീണ സമുദായത്തിലെ കാർഷിക വ്യവസായത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചു നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ച ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ വിത്തിറക്കി അതിൻ്റെ പല മേഖലകളിലൂടെ മുന്നോട്ട് പോയി അതിനെ വിളവാക്കി അവൻ അതിൽ സംരക്ഷിക്കുമ്പോൾ ഈ വ്യവസായത്തെ ശക്തിപ്പെടുത്തണമങ്കിൽ നാനാ മേഖലയിലും ഈ കൃഷി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വളത്തിൻ്റെ സബ്സിഡി നെല്ലിന് നല്ല നെൽ വിത്ത് കിട്ടണം അവന് അതുപോലെ തന്നെ പ്രകൃതിയുടെ നല്ല നല്ല ഒരു സംരക്ഷണം ലഭിക്കണം ഇതൊക്കെ കൂടി ഒത്തു വന്നാൽ മാത്രമേ കാർഷിക മേഖല ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടാൻ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഗ്രാമീണ സമുദായത്തിലെ കാർഷിക വ്യവസായം എന്ന് പറയുന്നത് ശരിക്കും ഈ അവസരത്തിൽ കർഷിക മേഖല പുറകോട്ട് പോകുന്ന ഒരു ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ തലമുറയിലെ ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ഒരു കാർഷിക വ്യവസായത്തിലെ കൃഷിയെ അവര് കൃഷിയോട് മുഖം തിരിയുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ കർഷിക സമുദായം അല്ലെങ്കിൽ കാർഷിക വ്യവസായം മെച്ചപ്പെടണമെങ്കിൽ നല്ല രീതിയിലുള്ള വിത്തിനങ്ങൾ വേണം നല്ല അത്യുൽല്പാദന ശേഷിയുള്ള വിത്തുകൾ വേണം അതേപോലെ തന്നെ അവന് ജോലി ചെയ്യുന്നതിതിന് ആവശ്യമായ കൃഷി സ്ഥലങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ നല്ല മെക്കനൈസേഷൻ ഇപ്പം മെക്കനൈസേഷൻ ആയിട്ടുണ്ട് എങ്കിൽ പോലും മെക്കനൈസേഷൻ എല്ലാ മേഖലയിലും വ്യാപിക്കാനും വ്യാപിപ്പിക്കാനും അതുപോലെ തന്നെ തൊഴിലിടങ്ങൾ അവന് കൂടുതൽ സന്തോഷം ലഭിക്കുന്ന രീതിയിൽ ഈ മേഖലയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാവിധ സഹകരണവും ഗവൺമെൻറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ചെറുകിട സംരംഭങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടി തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കാർഷിക വ്യവസായത്തെ അല്ലങ്കിൽ കൃഷി എന്ന ഈ വ്യവസായത്തെ ജനോൻമുഖമായ രീതിയിൽ കർഷകന് അവൻ ഉൽപാദിപ്പിക്കുന്ന വിത്ത് അവൻ്റെ വിളവുകൾക്ക് ആവശ്യമായ അതായത് അവൻ്റെ വിത്തിനങ്ങൾക്ക് വേണ്ട അവൻ്റെ പ്രോഡക്സിന് വേണ്ട നല്ല വില ലഭിച്ചാൽ മാത്രമേ ഈ വ്യവസായം ഭാവിയിൽ മുന്നോട്ട് പോവുകയുളൂ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലാണ് തീർ ച്ചയായിട്ടും ഈ കൃഷിക്കാരുടെ ഒരു പഴയ കൃഷിക്കാരുടെ ഒരു ഈ സമുദായ ഈ കാർഷിക വ്യവസായത്തോടുള്ള ഈ ഒരു താൽപര്യം ഇവർക്ക് ഇവരിൽ ജനിപ്പിക്കാനായിട്ട് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് നിന്നും കാർഷിക മേഖലയെക്കുറിച്ചുള്ള നല്ല അവബോധം നല്ല വിത്തനങ്ങൾ ഇതൊക്കെ ഈ മേഖലയിലുണ്ടായാൽ മാത്രമേ ഈ ഈ വ്യവസായത്തെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളു കർഷകന് അവൻ്റെ വിളവിന് തക്കതായ കൂലി അതുപോലെ തന്നെ ഇവൻ സംരക്ഷിക്കുന്നാലെ ഇവൻ വിളവെടുക്കുന്ന ഈ നെല്ല് അല്ലെങ്കിൽ മറ്റു കാർഷിക വിഭവങ്ങളൊക്കെ ഇത് ഇത് സംരക്ഷിക്കാൻ ഇത് അവന് അവൻ വിളവിറക്കുന്ന ആ ഈ ഒരു വിത്തിന് മതിയായ കൂലി ലഭിക്കുവാനൊക്കെ ഈ മേഖലയിൽ ഗവൺമെൻറിൻ്റെ അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ പങ്ക് ലഭിച്ചാൽ മാത്രമേ ഇത് ഈ വ്യവസായം മെച്ചപ്പെടാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് അറിയാം എല്ലാ മേഖലയിലും പോലെ തന്നെ കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനത്തിന് കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ കൂടിക്കൊണ്ട് നല്ല വിത്തിനങ്ങൾ വിളവിനായി ഇറക്കുകയും അതുപോലെ തന്നെ അവൻ്റെ വിളവിന് ആവശ്യമായ തുക സമയാ സമയങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ വ്യവസായം കൂടുതൽ മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ അവന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ച്ചർ കൃഷി ഒരുക്കുന്നതിൽ കൃഷിയുടെ മറ്റ് വിളവുകളുടെ പല മേഖലകളിലൊക്കെ അതേപോലെ തന്നെ ഇവൻ്റെ ഈ അധ്വാനത്തിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക അതേപോലെ തന്നെ പല മേഖലകളുമായി ബന്ധപ്പെടുത്തി ഇവന് ഈ അല്ലെങ്കിൽ ഈ കൃഷിക്കാരന് ആവശ്യമായ സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ വ്യവസായം മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന പല സംഭവങ്ങളും കൃഷി എന്നു പറയുന്ന വ്യവസായത്തിന് ഗുണം ചെയ്യുന്നതല്ല നമുക്ക് അറിയാം കൃഷിക്കാരന് ഒരു മാന്യമായ വിളവ് ലഭിച്ചാൽ അതിന് മാന്യമായ വില ലഭിക്കുന്നില്ല അത് തീർച്ചയായിട്ടും ഈ ഒരു വ്യവസായം തകർന്നടിയുന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് ഇവൻ്റെ കാർഷിക വ്യവസായം മെച്ചപ്പെടണമെങ്കിൽ എല്ലാ മേഖലയിലും കൃഷിയുമായി ബന്ധപ്പെട്ട് വിളവിറക്കുന്നത് മുതൽ വിളവെടുക്കുന്ന ഇടം വരെയുള്ള ഈ ഒരു നാൾ വഴി മുഴുവൻ പിന്നെ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഗവൺമെൻ്റിനും അതുപോലെ തന്നെ മറ്റ് ഈ കാർഷിക ഡെവലപ്മെൻ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ ലഭിച്ചാൽ മാത്രമേ ഈ വ്യവസായം ശക്തിപ്പെടുകയുള്ളൂ ഇത് കൂടുതൽ മേഖലകളിലേക്കൊക്കെ ഈ വ്യവസായത്തെ കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ ഒരുമിച്ചു നടത്തി ഈ വ്യവസായം കൂടുതൽ നല്ല രീതിയിൽ മമ്പോട്ട് പോകണം അതിന് എൻ്റെ അഭിപ്രായത്തിൽ പുതിയ തലമുറ പുതു തലമുറ ആൾക്കാരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും ഈ വ്യവസായത്തെ ശക്തിപ്പെടുത്താനും സാധിക്കണം